എനിക്ക് തത്പര്യം തോന്നിയിട്ടുള്ളത് എന്നല്ല എനിക്ക് പ്രതികരിക്കാൻ തോന്നിയിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് വാർത്തയിലൊക്കെ ഇപ്പം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പീഡനം തന്നെയാണ് എനിക്കതിനോട് പ്രതികരിക്കാൻ ഒരുപാട് തോന്നിയിട്ടുണ്ട് എനിക്കതിനോട് പ്രതികരിക്കാനാണ് താത്പര്യം കാരണം എന്തെന്നുവെച്ചാൽ ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ ളുടെ പീഡനം കൂടികൊണ്ടു വരികയാണ് ഇപ്പം നമ്മൾ ഇപ്പം ആലുവയിൽ തന്നെ നടന്നൊരു കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ പല പ്ര പല തവണയായിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പിന്നെ പീഡനത്തിന് ശേഷം കൊന്നു കളയുക അതുപോലെ ഉറങ്ങി കിടക്കുന്ന കുട്ടിയെ തന്നെ പിടിച്ചു കൊണ്ടുപോകുന്നൊരു ഒരു ഒരു വാർത്തയൊക്കെ നമ്മളുടെ മുന്നിലെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനോടൊക്കെ ഒന്ന് പ്രതികരിക്കണമെന്ന് എൻ്റെ എൻ്റെ മനസ്സിൽ പല തവണ തോന്നിയിട്ടുണ്ട് ഇത് സമകാലിക സംഭവം എന്ന് പറയുന്ന വിധത്തിലെന്നാണ് ഇപ്പോൾ ഒരുപാട് ഇപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് പിന്നെ അതുപോലെ കൊല കൊലപാതകങ്ങളും നമ്മുടെ ഇപ്പം ഇടയിൽ തന്നെ വീട്ടിനുള്ളിൽ തന്നെ ഒരാൾക്കൊരു സുരക്ഷിതത്വം ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പം അനിയനെ ചേട്ടൻ കൊല്ലുക അല്ലെങ്കിൽ അമ്മയെ മകൻ കൊല്ലുക അല്ലെങ്കിൽ മുത്തശ്ശിയെയും മുത്തശ്ശനെയും മരു മരുമക്കൾ കൊല്ലുക അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകളിപ്പോൾ നമുക്കിടയിൽ തന്നെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിനോടൊന്ന് പ്രതികരിക്കാൻ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്